ഹലോ ആ സാറിൻ്റെ എവിടെയാണ് കട്ടപ്പനയാണോ ഷോറൂമ് ആ ആ ആ ആ എനിക്ക് ഇന്നോവ ആയിരുന്നു ആ ആദ്യം ഒരു സെൻ ആയിരുന്നു ആ ആ പിന്നെ ഇച്ചിരി പഴതായിരുന്നതുകൊണ്ട് അത് കൊടുത്തിട്ട് പിന്നെ ഇന്നോവ എടുത്തായിരുന്നു ഇതിൽ എന്തോ ഇല്ല ഇപ്പം ഇല്ല

അല്ല എനിക്ക് ഒരു ഇന്നോവ തന്നെയാണ് ഇപ്പോഴും താല്പര്യം ഒരു സെക്കൻ്റ് ഇന്നോവ എടുക്കണമെങ്കിൽ എത്ര രൂപ ആകുമായിരിക്കും

സെക്കൻ്റിനോ സെക്കൻ്റിന് അത്രയും ആവുമോ ആ സെക്കൻ്റാണ് ഉദ്ദേശിച്ചത് ആ ഞങ്ങളുടെ ഏഴ് രൂപയ്ക്ക് കൊടുത്തത് രണ്ടായിരത്തി പതിനാല് ആയിരുന്നു എൻ്റെ വണ്ടി ആ ഏഴ് രൂപയ്ക്ക് കൊടുത്തത് നല്ല വണ്ടിയായിരുന്നുവെന്നേ

ആദ്യം കിട്ടിയപ്പോൾ എൺപത്തി അയ്യായ്യിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം ആ ആറ് വർഷത്തിന് ഇടയ്ക്ക് ആറ് വർഷം കൊണ്ടാണ് അത് ഒത്തിരി ഓട്ടം ഓടിയതല്ലായിരുന്നു പറഞ്ഞത് ആ ഞാൻ ആ ലോൺ എടുത്താണ് ഞാൻ എടുത്തത് അതുകൊണ്ട് എനിക്ക് ഒരു അതിനൊക്കെ എത്രയാവും എത്ര ആകുമായിരിക്കും റേറ്റ് അതെയോ മുപ്പതാകും മുപ്പതാകുമോ ഒമ്പത് ആ ആ അത് കിലോമീറ്ററിന് പെട്രോൾ ചാർജൊക്കെ എത്രയാകും ഡീസൽ ആണോ പെട്രോൾ ആണോ

ആ ആ മുകളിൽ കിട്ടും അല്ലേ ഇവിടെ തോപ്രാംകൊടി മ് സാറിൻ്റെ സ്ഥലം എവിടെയാണ് സാർ എവിടെയാണ് ആ ഇച്ചിരികൂടെ അടുത്ത് തന്നെയാണ് ആ ഇത് ജോലി സ്ഥലത്താണോ സാറേ ആ

ആ അത് ശരി ആ ഹാ

മ് ഹ്മ് മ് ഹ് ഹ ആ ഇവിടെ ഡൽഹിയിലൊക്കെ ഡൽഹിയിലൊക്കെ ഇങ്ങനെ ഈ വണ്ടി സെക്കൻ്റൊക്കെ നിസ്സാര വിലക്കൊക്കെ കിട്ടും എന്നു പറയുന്നത് കേട്ടു അവിടെ നിന്ന് ഇവിടെ എത്തിക്കേണ്ട റേറ്റെ ആകുള്ളൂ മ് ഡൽഹിയിൽ ആ ആ ഇരുപത് വർഷത്തിൽ കൂടുതൽ ഓടിക്കാം പത്ത് വർഷമോ ഇരുപത് വർഷമോ എങ്ങാണ്ട് അവിടെ ഓടാൻ പറ്റത്തുള്ളു അല്ലോ മ് അപ്പം അവിടുത്തെ ഹമ് ആ ആ ആ വണ്ടിയെ പറ്റി അറിയാവുന്നവർ വേണം ആ ആ

ആ നമ്മുടെ ഇവിടെ നിന്ന് പോയി ഡൽഹിയിൽ നിന്ന് പോയി എടുത്തു കൊണ്ട് വരുന്ന ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു വണ്ടി ആ ഒരു ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും നമുക്ക് ലാഭത്തിനു വിൽക്കാമെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ കൊണ്ടു വന്നാൽ ഇങ്ങനെ എൻ്റെ തൊട്ടവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വണ്ടി ഈയിടെ പറഞ്ഞാരുന്നു പക്ഷേ അത് വിറ്റു കഴിഞ്ഞതിൽ പിന്നെയാണ് അവൾ പറയുന്നത് ആ ആ അത് തന്നെ ആ പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡലാണെങ്കിൽ എടുത്തിട്ടും കാര്യമില്ല ആ

തട്ടും മുട്ടും ഒന്നും ഇല്ലാത്തതും ഒക്കെ മ്മ് ആ ആ ആ മ് മ് മ് മ് മ് മ്മ് മ് ഹ

നോക്കണം അല്ലേ മ് മ് മ് മ്

ഇപ്പം ഹസ്ബൻഡും ഞാനുമേ ഉള്ളു മൂന്നു പെൺപിള്ളേരാണ് ആ മൂന്ന് പേര് കല്യാണം കഴിച്ചു വിട്ടു പിന്നെ സാറിന് അറിയാമായിരിക്കും ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ അറിയാമായിരിക്കും തോപ്രാംകുടി ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ആ ഹൈഡ്രോളിക് സെൻറ്ററ് നടത്തുന്ന ജോസെന്ന് പറഞ്ഞ ആളാണ്

അതിൻ്റെ അതിൻ്റെ തൊട്ടു ഇപ്പുറം ഞാൻ ബ്യൂട്ടി പാർലാർ ആയിട്ട് ഇരിക്കുന്നു തോപ്രാംകുടി വന്നിട്ടുണ്ടോ ആണോ ആ ആ അന്നേരം ആ ഫെഡറൽ ബാങ്കിൻ്റെ തൊട്ട് ഇപ്പുറം ആ അതെ അതെ ആ അത് തന്നെ അത് തന്നെ

ആ പുതിയ വണ്ടി സാറ് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ മ്മ് മ് മ്മ് ഹമ് എടുക്കണമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് ആ അല്ല വണ്ടി എടുക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു

ആ ഇപ്പോൾ ഇല്ല കേട്ടോ സാറേ ഇപ്പോൾ ഇല്ല പൈസയൊന്നും റെഡി ആയില്ല റെഡി ആയാൽ മ് മ് ആ ആയിക്കോട്ടെ